ഞാൻ കൂടുതലായും ഒരു പത്താം ക്ലാസ്സിൽ സ പഠിക്കുന്ന സമയങ്ങളിലാണ് ആദ്യമായി തുന്നൽ ആരംഭിക്കുന്നത് എൻ്റെ വീടുകളിൽ എൻ്റെ അച്ഛനും അമ്മയും നെയ്ത്ത് ശാലകളുണ്ട് അവർ നെയ്ത്ത് ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അതുവഴിയാണ് എന്നെ അത് കൂടുതൽ പ്രചോദനമാക്കിയത് എൻ്റെ ഒഴിവു സമയങ്ങളിൽ അവരെ സഹായിക്കുവാൻ എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് അതുവഴി എനിക്ക് എൻ്റെ കല കൂടുതൽ വളർത്തുവാൻ സഹായിക്കും നെയ്ത്ത് മാത്രമല്ല കൂടുതൽ വരയ്ക്കാനും നല്ല രീതിയിൽ നെയ്ത് എടുക്കുവാനും ഞാൻ ശ്രമിക്കാറുണ്ട് ഇതുവഴി എനിക്ക് കൂടുതൽ മുന്നേറാൻ പറ്റും അതുമാത്രമല്ല നാട്ടിൽ ആളുകളുടെ തുണികൾ ഞാൻ തയ്ച്ച് കൊടുക്കാറുണ്ട് അതുവഴി ഒരു ചെറിയ വരുമാനം എനിക്ക് ലഭിക്കുകയും അത് എൻ്റെ പഠനത്തെ സഹായിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു കൂടുതൽ കൂടുതൽ ഞാൻ ഇതിലോട്ട് പഠിക്കുവാനും അതിനെക്കുറിച്ച് അറിയുവാനും ഞാൻ ആഗ്രഹിച്ചു അതിനാൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഫാഷൻ ഡിസൈനിംഗ് കോഴ്സ് ചേരുവാൻ ഞാൻ ആഗ്രഹിച്ചു അതിനായി ഞാൻ പരിശ്രമിച്ചു ഫാഷൻ ഡിസൈനിംഗ് കോഴ്സ് വഴി എനിക്ക് കൂടുതൽ ആ കലയെപ്പറ്റി അറിയുവാനും കൂടുതൽ കൂടുതൽ അതിൽ ഇണങ്ങിച്ചേർന്ന് വളർന്ന് വരുവാനും എന്നെ സഹായിച്ചു അതുമാത്രമല്ല അതൊരു കൈത്താങ്ങായി എൻ്റെ അച്ഛനും അമ്മയ്ക്കും സഹായകരമായിരുന്നു കൂടുതൽ അറിവ് സമ്പാദിക്കുക വഴി ഞാൻ കൂടുതൽ വളരുവാൻ തുടങ്ങി ഇങ്ങനെ ഞാൻ സ്വന്തമായി ഒരു കട തുടങ്ങുകയും ഒരു ബൊട്ടിക്ക് തുടങ്ങുകയും ചെയ്തു അവിടെ ഞാൻ ഡിസൈനുകൾ ചെയ്ത നെയ്ത ഞാനും എൻ്റെ അച്ഛനും അമ്മയും കൂടി നെയ്ത് എടുത്ത പുതിയ പുതിയ സാരികൾ പുതിയ പുതിയ വസ്ത്രങ്ങൾ ഞങ്ങൾ ഇറക്കുമതി ചെയ്തു അതുവഴി കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാനും അവരുടെ ആകർഷം പറ്റുവാനും ഞങ്ങളെ സഹായിച്ചു അതുമാത്രമല്ല അതുവഴി കൂടുതൽ ഞങ്ങൾക്ക് സ്വന്തമായി ഒരു വരുമാനം എന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റി പട്ടിണിയില്ലാണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അത് വളരെ സഹായകരമായിരുന്നു അത് മാത്രമല്ല ഞങ്ങളുടെ നാട്ടിലെ പല ആളുകൾക്കും ജോലി സാധ്യത നൽകാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു ഒരു വലിയ നെയ്ത്ത് ശാല എന്ന സ്വപ്നം ഞങ്ങൾ എന്നും ഉണരുമ്പോൾ കാണുന്ന സ്വപ്നമായിരുന്നു ആ സ്വപ്നം ഇനി യാഥാർത്ഥ്യമാണ് അതിന് ഈ കഴിവ് ഈ കല ഞങ്ങളെ സഹായിച്ചു എൻ്റെ അച്ഛനും അമ്മയെയും വളരെ നന്നായി നോക്കുവാനും എൻ്റെ സഹപാഠികളെയും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവരെ സഹായിക്കുവാനും എനിക്ക് വളരെ സാധ്യമാണ് ഇന്ന് കാരണം അത് നെയ്ത്തു എന്ന കലയാണ് എന്നെ ഇന്ന് ഞാൻ ആക്കി മാറ്റിയത് അതുമാത്രമല്ല ഞങ്ങൾ ചെറിയ ചെറിയ ഓർഗനൈസേഷനുകളുമായി ചെറിയ സഹായങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട് അതുവഴി വേറൊരു ജീവനെ കൂടി രക്ഷിക്കുവാൻ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് കൂടുതൽ കുട്ടികൾക്കും താങ്ങാവാൻ വേണ്ടി പാഠ്യ വിദ്യാഭ്യാസ പദ്ധതികളിൽ സ്കൂളുകളുമായി ചേർന്ന് ചെറിയ ചെറിയ ധനസഹായങ്ങളും ഞങ്ങൾ നൽകാറുണ്ട് ഇതുവഴി ബാക്കിയുള്ള നാളുകളെ കൂടി രക്ഷിക്കാൻ ഞങ്ങൾ സഹായിക്കും അതുമാത്രമല്ല സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ നെയ്ത്ത് എന്ന കലാരൂപത്തെ പരിചയപ്പെടുത്തുവാനും അവരെ കൂടുതൽ അതിനെപ്പറ്റി അറിയുവാനും ജോലി സാധ്യതകളെയും പറ്റി അറിയുവാൻ വേണ്ടി ഞങ്ങൾ അവർക്കായി ഫ്രീ ക്ലാസുകൾ എടുത്ത് കൊടുക്കാറുണ്ട് അതു മാത്രമല്ല അവരെ ഞങ്ങളുടെ നെയ്ത്ശാലകളിൽ കൊണ്ട് കാണിച്ച് അവർക്ക് അതിനെപ്പറ്റി അറിയുവാനും അവസരങ്ങൾ ഞങ്ങൾ ഒരുക്കി കൊടുക്കാറുണ്ട്